പാചകവിധികളെ കുറിച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണാറില്ല എന്നാലും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്നതും കുറച്ച് സിമ്പിളായിട്ട് തോന്നുന്നത് ലക്ഷ്മി നായർ വ്ളോഗ്സ് ആണ് ലക്ഷ്മി മാം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഏതൊരു ന്യൂ കമറിനും എങ്ങനെയത് ചെയ്യാം എന്നുള്ളത് പിന്നെ നമ്മുടെ പാരൻ്റ്സും പിന്നെ അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞ് തരുന്നതാണല്ലോ അവർ പറഞ്ഞ് തരുന്നതുപോലെ ചെയ്യുന്നു നമ്മുടേതായ കുറച്ച് പൊടിക്കൈകളും ചെയ്യുന്നതാണല്ലോ പാചകം എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക്